വീട്ടിൽ നമ്മൾ പാചകം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്യുന്ന സമയം തൊട്ട് നമുക്ക് ഇതിൻ്റെ സുരക്ഷാക്രമീകരണങ്ങൾ വളരെയധികം അത്യന്താപേഷിതം തന്നൊണ് കാരണം കുട്ടികൾ ഉപയോഗിക്കുമ്പോഴും മുതിർന്നവർ ഉപയോഗിക്കുമ്പോഴും നമ്മൾ സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഗ്യാസ് എങ്ങനെ മുന്നോട്ട് വരുന്നു അത് എങ്ങനെ നമുക്ക് ഓഫ് ചെയ്യാം എന്നതിനെക്കുറിച്ചു നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മുടെ സിലിണ്ടർ കൊണ്ടുവരുന്നു സിലിണ്ടർ നമ്മള് വണ്ടിയിൽ നിന്നിറക്കുന്നു അപ്പോൾ തൊട്ട് നമ്മുടെ സിലിണ്ടറുകളെ എങ്ങനെ അതിൻ്റെ സുരക്ഷിത്വം അതിൻ്റെ അടപ്പുകളെ ലീക്കുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് നോക്കണ്ടത് അത്യാവശ്യം തന്നെയാണ് നമ്മൾ സിലിണ്ടർ അതേപോലെ തന്നെ പാചകം ചെയ്തതിന് ശേഷം നമ്മൾ സിലിണ്ടർ ഓഫ് ചെയ്തിട്ട് പോവുക അതിൽ നിന്ന് ഗ്യാസ് ലീക്ക് ആവുന്നുണ്ടോ അതേപോലെ തന്നെ കുട്ടികൾ തുറക്കുവാനായിട്ടുള്ള സാധ്യതകളുണ്ടോ എല്ലാം നമ്മൾ നിരീക്ഷിക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഗ്യാസ് ഒരു തീപിടുത്തം മറ്റും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് നമ്മളെ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും നമ്മുടെ കുട്ടികളെ എങ്ങനെ രക്ഷപ്പെടുത്താൻ സാധിക്കും നമ്മുടെ വീട്ടുപകരണങ്ങളെ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും എന്നതിനെക്കുറിച്ചു നമ്മൾ മുൻകൂറ് തന്നെ അതിനെക്കുറിച്ചു ഒരു ധാരണയിൽ എത്തേണ്ടത് തന്നെയാണ് അതേപോലെ നമുക്ക് പാചകം ചെയ്യുമ്പോഴത്തേക്ക് എന്തു മാത്രം അതിൻ്റെ ക്വാളിറ്റി കാരണം ഗ്യാസെന്ത് മാത്രം ലീക്ക് ആവുന്നുണ്ട് ഗ്യാസെന്ത് മാത്രം നമുക്ക് വേണം അതുേപോലെ ഓരോ ഓരോന്നിനും ഗ്യാസ് എങ്ങനെ കിട്ടി എടുക്കാം കുറച്ചെടുക്കാം അതേപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ അളവുകൾ പോലും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു വെള്ളം ചൂടാക്കുന്നു ആ വെള്ളം ചൂടാക്കുമ്പോഴത്തേക്ക് അതിനെന്ത് മാത്രം നമ്മൾ ഗ്യാസ് ആവശ്യമുണ്ട് അവന് എന്ത് മാത്രം വെള്ളം തിളക്കുന്നു അങ്ങനെ ഉള്ളത് എല്ലാം അത്യന്തപേക്ഷിതം തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് ഒരു ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അത് എങ്ങനെ ഉപയോഗിക്കാം അത് ഗ്യാസിൻ്റെ സുരക്ഷിതത്വം നമുക്ക് ഗ്യാസ് എത്ര കുറച്ചെടുക്കാനായിട്ട് സാധിക്കും നമുക്ക് അതിൻ്റെ ഒരു ലാഭം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അതുപോലെ അതൊക്കെ നമ്മൾ അത്അത്യന്താപേക്ഷിതമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതേപോലെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ അതിൻ്റെ അളവുകളെ അതേപോലെ തന്നെ ഗ്യാസിൻ്റെ അതിൻ്റെ ബോഡി സുരക്ഷിതാവസ്ഥ അത് നമുക്ക് എങ്ങനെ ഉപകരിക്കുവാൻ എങ്ങനെ ഉപയോഗിക്കുവാൻ സാധിക്കും നമ്മുടെ അതിൻ്റെ വെയ്റ്റുകൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കി എടുക്കേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഈ കുറ്റികളുടെ പഴക്കം അത് പഴക്കത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാകാവുന്ന അപകടങ്ങളെ നമുക്ക് ഒരു വീട്ടിൽ അങ്ങനെ അപകടങ്ങൾ മുഖാന്തരം ഇത് പൊട്ടിത്തെറിക്കുകയും നമുക്ക് തീ പിടിക്കുക നമ്മളെ കുടുംബം നമ്മുടെ കുടുംബത്തിന് തന്നെ നമ്മുടെ മുതലിന് തന്നെ ഒരു ഒരു ഭയാനത ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാകും പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുകയും ഗ്യാസിൻ്റെ സുരക്ഷിതാവസ്ഥ അതുപോലെ തന്നെ നമ്മൾ പാത്രങ്ങള സുരക്ഷിതം എല്ലാം നമ്മൾ നോക്കി കൊണ്ട് നോക്കുക തന്നെ ചെയ്യണം നമ്മുടെ വീടുകളിലെ നമുക്ക് ഇന്ന് ഗ്യാസെന്ന് പറയുമ്പോഴത്തേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പണ്ടത്തെ അടുപ്പിൽ നിന്നും നമ്മള് ഗ്യാസിലേക്ക് മാറുകയും നമ്മുടെ മാതാപിതാക്കളും നമ്മൾ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം ഈ ഗ്യാസ് അടുപ്പുകൊണ്ട് ഗ്യാസ് അടുപ്പിൽ വച്ചാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നതും ആ ഗ്യാസ് അടുപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അ നമ്മൾ അതിൻ്റെ ഗ്യാസ് എടുക്കുമ്പോൾ തൊട്ട് അതിൻ്റെ സുരക്ഷിതാവസ്ഥ അതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിക്കണം അപകടമില്ലാത്ത രീതിയിലെ നമ്മൾ സുരക്ഷിതം സുരക്ഷിതത്തോടുകൂടി തന്നെ അത് നോക്കുകയും അതിൻ്റെ നമ്മുടെ നമ്മുടെ സുരക്ഷിതാവസ്ഥയും അതുപോലെ നമ്മുടെ നമ്മുടെ വീട്ടുപകരണങ്ങളും അങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഇത് സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് തന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഗ്യാസ് നല്ലത് തന്നെയാണ് ഗ്യാസ് അടുപ്പിൻ്റെ ഒരു ഉപയോഗം നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങള് മുന്നോട്ട് പോവട്ടെ നമുക്ക് ഗ്യാസ്സ് ഇപ്പം ഏറ്റവും കൂടുതലും അത്യാവശ്യം തന്നെയാണ്